വീട്ട് മുറ്റത്തോ പൂന്തോട്ടത്തിലോ പക്ഷികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാല് വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് ഒക്കെ വെള്ളം വയ്ക്കുക ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചിരട്ടയിലോ ഒക്കെ വെള്ളം വയ്ക്കണം അതുപോലെ മതിലിൻ്റെ ഒക്കെ പുറത്ത് കുറച്ച് പൊക്കത്തായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ചോറൊക്കെ കറിയിലൊക്കെ കുഴച്ചിട്ട് മതിലിൻ്റെ ഒരു പൊക്കൊത്തൊക്കെ വെച്ചാല് അത് പക്ഷികൾക്ക് വന്ന് ഭ തിന്നാൻ ഒക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ ചെറിയ കുറ്റി കുറ്റി ചെടികള് കുറച്ച് അധികം പൊക്കമില്ലാത്ത ഇല മൂടിയിട്ട് അ ഇല മൂടിയുള്ള ഓരോ ചെടികളിൽ ഒക്കെ പക്ഷികൾക്ക് വന്ന് കൂട് കൂട്ടാൻ എളുപ്പമാണ് എളുപ്പാണെന്ന് വെച്ചാൽ അവർക്ക് കാറ്റ് കാറ്റ് വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒരു സംരക്ഷണം ആണ് കുറ്റി ഒരു കുറ്റിച്ചെടി പോലെ ഇലകൾ മൂടിയത് ആണെങ്കിൽ അവരുടെ കൂടിന് ഒന്നും പറ്റില്ല അത്പോലെ തന്നെ നമ്മുടെ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ കോഴികൾക്ക് ഒക്കെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഈ അരിയും അത്പോലെ ഗോതമ്പ് മണിയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ രാവിലെയൊക്കെ ആയാൽ മൈന പ്രാവ് എന്നീ പക്ഷികളൊക്കെ വന്ന് കൊത്തി തിന്നുന്നത് കാണാം അതൊക്കെ ഒരു ആകർഷ പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത്പോലെ തന്നെ ഞാൻ എറണാകുളത്ത് ഉള്ള സമയത്ത് ഞാൻ ഇത്പോലെ മതിലിൻ്റെ പൊക്കത്ത് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ കാക്കയൊക്കെ വന്ന് കഴിക്കുമായിരുന്നു കാക്ക വന്ന് കൊത്തി തിന്നുന്നത് ഒക്കെ കാണാം അത്പോലെ ഞാൻ എൻ്റെ വീട്ടിൽ അത്പോലെ ഒക്കെ ചെയ്യാറുണ്ട് വെള്ളം ഒക്കെ വെച്ച് അത്പോലെ ധാന്യങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷികൾക്ക് ഒക്കെ